സാങ്കേതിക വിദ്യ കുട്ടികളിൽ ഉണ്ടാക്കുന്ന പ്രധാനമായിട്ടുള്ള ഉപദ്രവങ്ങളാദ്യം പറയാം അതായത് ടീ വി മൊബൈല് എന്നിവയൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികള് മൊബൈലിൽ കൂടുതലും ഗെയിം കളിക്കുക കാര്യങ്ങളായിട്ട് മൊബൈലിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ മണിക്കൂറുകളോളം ആ ഗെയിമിന്റെ ഇൻട്രസ്റ്റില് സ്ക്രീനിലേക്ക് നോക്കി ഇരിക്കുമ്പോൾ കുട്ടികൾക്ക് കണ്ണുകൾ കണ്ണിന് ബുദ്ധിമുട്ട് വരും കണ്ണിന് കാഴ്ചയ്ക്കൊക്കെ തകരാറ് വരും പിന്നെ കുട്ടികള് ഈ മൊബൈലിലും ടീവിയിലും ഒരേ ഇരുപ്പ് ഇരിക്കാതെ പുറത്തൊക്കെ പോയി കളിയ്ക്കുക ഒക്കെ ആണെങ്കിൽ കുട്ടികള് ആരോഗ്യം ന് ഒക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം തടി ഒക്കെ ഒന്നനങ്ങി കളിക്കുക കളികളിൽ ഒക്കെ ഏർപ്പെടുമ്പോൾ ശരീരത്തിന് വലിയ പ്രശ്നമില്ല മറ്റേത് ഈ ഫോണും ടീവിയും കണ്ടിങ്ങനെ ഇരിക്കുമ്പം ഒരേ ഇരിപ്പിങ്ങനെ ഇരിക്കുമ്പോൾ കുട്ടികൾക്ക് കണ്ണിന് ശരീരത്തിന് ഒക്കെ ബുദ്ധിമുട്ടാണ് ഈ മൊബൈലിൽ ഇങ്ങനെ ഗെയിമൊക്കെ വരുമ്പോൾ ചില ഗെയിമൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആകും അപ്പോൾ മണിക്കൂറ് കണക്കിനിരിക്കുമ്പോൾ അവരുടെ ബുദ്ധിക്ക് വരെ മാറ്റം വരുന്നുണ്ട് കണ്ണിൻ്റെ കാഴ്ച്ചയ്ക്കും ഒക്കെ പ്രശ്നം വരുന്നുണ്ട്